ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്നു പറഞ്ഞാൽ വേണ്ട സമയത്ത് നമ്മുടെ പരിസ്ഥിതിയുടെ പൗരാണിക രീതിയിലുള്ള എല്ലാവിധ സ്ഥല സ്ഥിതികളും തകിടം മറിഞ്ഞു കഴിഞ്ഞു മഴ വേണ്ടപ്പോൾ മഴയില്ല ചൂടു വേണ്ടപ്പോൾ ചൂടില്ല മഞ്ഞ് വേണ്ടപ്പോൾ മഞ്ഞില്ല അങ്ങനെ കാലാവസ്ഥയ്ക്ക് വളരെയധികം വ്യതിയാനം സംഭവിച്ചു അപ്പോൾ പഴയ രീതിയിലുള്ള കാർഷിക രീതി കാർഷിക രംഗം ഇന്നു പറ്റാതെയായിക്കഴിഞ്ഞു നദികൾ ഒക്കെ കയ്യേറി കാട് കയ്യേറി മലകൾ ഇടിച്ചു നിരത്തി കുന്നുകൾ ഇടിച്ചു നിരത്തി കടൽ കയ്യേറി കൃഷിയിടങ്ങൾ ഒന്നും പണിയാൻ ആ ആവാസ യോഗം അല്ലാതെയായി അതുകൊണ്ടുതന്നെ കൃഷിയിടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പാർപ്പിടങ്ങൾ ആയി മണ്ണ് വളരെയധികം ശോഷിച്ചു മണ്ണിന് അമ്ലം ഇല്ലാതെയായി അല്ലെങ്കിൽ മണ്ണിന് പശിമ ഇല്ലാതെയായി മണ്ണിൽ എന്തു വിത്തെറിഞ്ഞാലും ആ വിത്തൊന്നും മുളയ്ക്കാത്ത അവസ്ഥയിൽ വരെയെത്തി അതിൻ്റെയൊക്കെ കാരണമെന്താ കൃത്യസമയത്ത് മഴയോ കൃത്യസമയത്ത് ശീതകാലമോ വരുന്നില്ല ഇതിന്റെ കാരണക്കാരൻ ഒരു ആരാണെന്നു ചോദിച്ചാൽ ഒരു പരിധിവരെ ഈ നാട്ടിലെ ജനങ്ങളാണ് മനുഷ്യരാണ് അവരുടെ ആക്രാന്തികൊണ്ട് അവരുടെ സ്വാർത്ഥതകൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു വലിയ തെറ്റ് അല്ലാതെ അതിനു കുടപിടിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരും കൂടിയപ്പോൾ ഈ രാജ്യത്തിന് അല്ല ഈ ലോകത്തിനു പോലും ആവാസവ്യവസ്ഥയ്ക്ക് ച്യുതി സംഭവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഇതാ കൃഷി കൃഷിയൊക്കെ വെറുതെയിട്ടിരിക്കുകയാണ് തരിശിട്ടിരിക്കുകയാണ് കാരണം പണിയാൻ പറ്റില്ല ഇനി പറമ്പുകളിൽ എന്തെങ്കിലുമൊക്കെ പണിതു എന്നുവച്ചാൽ പോലും എന്തെങ്കിലുമൊക്കെ നമ്മൾ വിത്തിറക്കിയാൽ പോലും അതൊന്നും നേരെയാവുന്നില്ല നല്ല രീതിയിൽ വരുന്നില്ല എന്തെങ്കിലും മുളച്ചു പൊന്തിയാൽ അതിനെ കാട്ടുമൃഗങ്ങളുടെ ശല്യം വളരെയധികമായിക്കഴിഞ്ഞു അതിനു കാട്ടുമൃഗങ്ങളെ കുറ്റം പറഞ്ഞിട്ടു കാര്യമില്ല കാരണം കാടൊക്കെ കയ്യേറി ആ കാട്ടുമൃഗങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ലാതെ ആയി അപ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങി നാട്ടിലെ കൃഷിയിടങ്ങളിൽ നിന്ന് കിട്ടാവുന്നത് പറിച്ചു തിന്നുന്ന ഒരു ഗതികേട് അവർക്കും ഉണ്ടായി അതുകൊണ്ടുതന്നെ കാർഷികരംഗത്ത് എന്തും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി എന്നാൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെയധികം കർശനമായ നടപടികളും കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ മൃഗങ്ങളെ കൊന്നൊടുക്കാനോ നശിപ്പിക്കാനോ പറ്റാത്തതു കൊണ്ട് ഇവിടത്തെ ആവാസ വ്യവസ്ഥിതി പൂർണ്ണമായും തകർന്നു കാർഷിക രംഗം മുഴുവൻ പോയി ജീവിക്കാൻ പോലും പ്രാണവായുവിനു പോലും ബുദ്ധിമുട്ടായി എന്നുള്ളതാണ് യാഥാർഥ്യം